എ നിക്ക് കൃഷിപ്പണീൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന പണികള് ഞാൻ കൃഷി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് വീട്ടില് ഈ ആശാരിപ്പണി ചെയ്യലുണ്ട് വാതില്ൻ്റെ ജനൽപാളീൻ്റയൊക്കെ പണിയെടുക്കും കൃഷിയിൽ ഇത് ഈ പണി ഇല്ലാത്ത സമയത്ത് കൃഷി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ ജോലികള് ചെയ്യും ഇപ്പോൾ ഇവിടെ വീട്ടിലാണെങ്കില് പയറ് വെണ്ട ഇങ്ങനൊക്കെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള സമയങ്ങളില് ഞാനീ മറ്റുള്ള ഈ ആശാരിപ്പണി എടുക്കാറാണ് പോവാറ് അതങ്ങനെ എടുക്കലുണ്ട് വീട്ടില് വെച്ച് എടുക്കുമ്പോൾ ഓരോ വീടുകളില് ചെന്നിട്ട് അങ്ങനെ ചെയ്യലുണ്ട് ഈ ഇത് ഈ ആശാരിപ്പണി ഇല്ലാത്ത സമയത്ത് കൃഷിപ്പണിയാണ് ചെയ്യുക കൃഷിയില്ലാത്ത സമയത്ത് ഇതേമാതിരി ആശാരിപ്പണിക്കും പോവും അങ്ങനെ ഓരോ ഇത് രണ്ടും മാറി മാറി അങ്ങനെടുത്ത് പോകലാണ് കൃഷി ചെയ്യണത് ഇഷ്ട്ടമാണ് എന്നാലും ഞമ്മ കൃഷിയിൽ നിന്നൊന്നും കിട്ടുവൊന്നുമില്ല അപ്പോൾ പിന്നെ ആശാരിപ്പണിയാകുമ്പോൾ ഷെഡിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല വർക്ക് കിട്ടും അപ്പോൾ ഓരോ വീടുകളിൽ കൂടെ ചെന്ന് അങ്ങനെ പണിയെടുക്കുന്നുണ്ട് അങ്ങനോരോന്ന് അങ്ങനെ ഓരോ മേഖലയിൽ പിന്നെ ഈ പറമ്പില് കൂടെ ഉള്ള ഓരോ ജോലികള് ചെയ്യാനും ഇഷ്ട്ടമാണ് അപ്പോൾ അങ്ങനെ പറമ്പില് ചേന ചേമ്പ് ഇങ്ങനെ ഉള്ളതൊക്കെ വെക്കും ഈ ആശാരിപ്പണി ഇല്ലാത്ത സമയത്ത് വീടിൻ വീട്ടിലുള്ള പറമ്പിലാണ് വെക്കാറ് അവിടൊക്കെ ഇങ്ങനെ ചേന ചേമ്പ് ഒക്കെ വെക്കും അങ്ങനോരോ ജോലി ചെയ്യുമ്പോൾ അതിന് ഉള്ളതായിട്ട് കിട്ടും അങ്ങനെ കൃഷി എന്ന് ഇൽ നഷ്ട്ടാമാകുമ്പോൾ ഇങ്ങനെ വീട്ടില് ഓരോ വീട്ടുകളിലുള്ള പണി ചെയ്യും അങ്ങനോരോ പണി അങ്ങനെ ചെയ്ത് പോകുന്നു അല്ലാതെ വേർതിരിക്കലില്ല അത്രേ ഉള്ളു ഓരോ കാര്യങ്ങള് അപ്പോൾ നമ്മൾ വീട്ട്പണി നടക്കണോ കൃഷി നടക്കണോ കൃഷിയാണ് മെയ്നായിട്ട് വേണ്ടത് പക്ഷേ കൃഷി ചെയ്യാന് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഓരോര്ത്തര് മറ്റുള്ള ജോലിക്കൊക്കെ പോകുന്നത് കാരണം സ്വന്തമായിട്ട് ആർക്കുമിപ്പോൾ ഭൂമി കുറവല്ലെ അപ്പോൾ കൃഷി ചെയ്യാന് സ്ഥലം കിട്ടാത്തതുകൊണ്ട് വേറെ ഉള്ള മേഖലയിലേക്ക് കുറെ ആൾക്കാര് അങ്ങനെ തിരിഞ്ഞു അത്രെ ഉള്ളു എനിക്ക് പറയാനുള്ളത് അപ്പോൾ